ഒരു വ്യക്തിയുടെ വിജയത്തിന് വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും അവരുടെ ജീവിതത്തിലെ ഏറ്റോം വലിയൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് നമുക്ക് ഒരാൾക്ക് സമൂഹത്തിലെങ്ങനെ പെരുമാറണമെന്നും ഒരു ഒരു വ്യക്തിയോട് എങ്ങനെ സംസാരിക്കണമെന്നുമുള്ള ഒരു രീതി നമുക്ക് അറിയുന്നത് തന്നെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ആൺകുട്ടികൾടെ വിദ്യാഭ്യാസോം പെൺകുട്ടികൾടെ വിദ്യാഭ്യാസോം തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ട് അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ പറ്റാത്ത കുറെ സാഹചര്യം ഉണ്ടാകാറുണ്ട് അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ചിലപ്പം അവരെ വിവാഹം കഴിച്ച് അയപ്പിക്കും കാരണം അവരുടെ വീട്ടിൽ സാമ്പത്തിക അവസ്ഥയാണ് ആൺകുട്ടികൾ പഠിച്ചിട്ട് ഒരു നല്ലൊരു ജോലി വാങ്ങും വാങ്ങും കുടുംബത്തെ നോക്കും എന്നുള്ള സംസ്കാരമാണ് പണ്ടു മുതൽക്കേ ചില സംസ്ഥാനങ്ങളിൽ പിന്തുടരുന്നത് എന്നാൽ പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുകയും ഒരു കുടുംബത്തിന് താങ്ങായി മാറുകയും ചെയ്യണ്ടത് ചെയ്യേണ്ടത് അനിവാര്യമാണെന്നുള്ളത് ആരും മനസിലാക്കുന്നില്ല അത് മനസിലാക്കണം എങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചേ മതിയാകൂ ഇപ്പം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടീട്ട് പല തരത്തിലുള്ള സമ്പ്രദായങ്ങൾ പല പല തരത്തിലുള്ള ഇന്നവേഷൻസും ഗവൺമെന്റ് മാനൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടീട്ട് അവർക്ക് ലാപ്ടോപ്പ് സൈക്കിള് ടേബിള് അങ്ങനെയുള്ള പുതിയ തരം സംരംഭങ്ങൾ ഗവൺമെൻറ് കൊണ്ടു വന്നാൽ അത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മുന്നോട്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടീട്ടത് അത്രയ്ക്കും ഹെൽപ്ഫുള്ളാന്ന് ഇപ്പോൾ അത് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും അവരുടെ ചിന്താശേഷിയുമൊക്കെ വർദ്ധിപ്പിക്കുന്ന എന്നതാണ് ഈ പല കുടുംബങ്ങളിലും അവരുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോകുന്നതിന് കാരണം സം ചിലപ്പോൾ പൈസ ഇല്ലാത്ത കൊണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറിൻ്റെ ഭാഗത്തൂന്ന് സപ്പോട്ട് തരുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഫീസ് ഇളവ് നൽകുമ്പോൾ ആ കുടുംബം ഓ ഫീസ് കൊടുക്കണ്ടല്ലോ അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം ആ എൻ്റെ കുട്ടിയും പഠിച്ച് വളരട്ടെ എന്നുള്ള ചിന്ത അവരുടെ മാതാപിതാക്കളിൽ ഉ ണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഗവൺമെൻറ് കൊണ്ടു വന്നാൽ അവരുടെ ഓരോ ഓ വിദ്യാഭ്യാസം ഓരോ കുടുംബത്തിലെയും പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോവുകയും അവർ നല്ലൊരു ജോലിയിൽ ജോലി ലഭിക്കുകയും അവരുടെ കുടുംബത്തിന് താങ്ങായി മാറുകയും ചെയ്യുന്നു പണ്ടത്തെ രീതി വെച്ച് നോക്കുമ്പോൾ ആൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം ക പിന്തുടർന്ന് പോകും പക്ഷേ പെൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ കല്ല്യാണം കഴിച്ച് അയപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് നിർത്തലാക്കേണ്ടത് ആവശ്യമാണ് അത് ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് നൽകുന്ന ഒരു പ്രോത്സാഹനത്തിലൂടെ മാത്രമേ ഇത് ഒഴിവാക്കാൻ പറ്റൂ ഇപ്പോൾ പൈസ ഇല്ലാത്ത അതായത് സാമ്പത്തികശേഷി കുറവായിട്ടുള്ള ഒരു കുടുംബത്തിനാണെങ്കിൽ അവരുടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇങ്ങനെ പല ഇതും ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടതാന്ന് അതുപോലെ തന്നെ ടേബിള് സ്റ്റഡീ ടേബിള് സ്റ്റഡീ ടേബിളിൻ്റെ ഇത് വിദ്യാർത്ഥികൾക്ക് സ്റ്റഡീ ടേബിള് നൽകുന്നുണ്ടെങ്കിൽ അതും അവരുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടീട്ട് അതും ഹെൽപ്ഫുള്ളാന്ന് പിന്നെ ആ അതുപോലെ തന്നെ ലാപ്ടോപ്പ് സൈക്കിള് അതായത് ഇപ്പോൾ ചിലരുടെ വീട് എന്ന് പറയുന്നത് കുറെ ദൂരെ ആയിരിക്കും സ്കൂളിൽ നിന്ന് കുറെ ദൂരത്തിലായിരിക്കും അവരുടെ വീട് ഉണ്ടാവുന്നത് അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിലെത്തി ചേരാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വണ്ടി ഒക്കെ വിളിച്ച് സ്കൂളിലെത്തിക്കാൻ വേണ്ടീട്ട് പാരൻസിന് പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഗവൺമെൻറ് ഒരു സൈക്കിള് പെൺകുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്താൽ ആ സൈക്കിളില് കൂടീട്ട് അവർക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എത്താൻ വേണ്ടീട്ട് പറ്റുന്നതാണ് അങ്ങനെ അവരുടെ വിദ്യാഭ്യാസരീതി വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും പെൺകുട്ടികൾക്കായിട്ട് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ആരായാലും അവർക്ക് വേണ്ടീട്ട് പ്രത്യേക സെഷൻസ്സ് നടത്തുന്നുണ്ടെങ്കിൽ അതും കൂടുതൽ ഹെൽപ്ഫുള്ളാന്ന് വിദ്യ അവരുടെ വിദ്യാഭ്യാസ ത്തെ മുന്നോട്ട് കൊണ്ടു പോവാൻ വേണ്ടീട്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ലാപ്ടോപ്പ് സ്കീമും സൈക്കിൾ ടേബിൾ വിതരണം ഇങ്ങനെയുള്ള പല സ്കീമുകളും നിലവിലുണ്ട് പക്ഷേ അത് എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപിപ്പിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പം അങ്ങനെ അവരുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ ഓരോ പെൺകുട്ടിയും അവരുടെ അവർക്ക് ഏൺ ചെയ്യാവുന്ന ഒരു സാമ്പത്തിക ശേഷി ഉണ്ടാവുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടീട്ട് ഇങ്ങനെയുള്ള ഓരോ കഴിവിലൂടെ സാധിക്കുന്നതാന്ന് അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ഓരോന്നും ഓരോ പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഓരോ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾടെ സ്വയം പര്യാപ്തതയും അവരുടെ വികസന ശേഷിയും അവരുടെ ബുദ്ധിയും വിവേകവും ഒക്കെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്കീമ് എന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ രാജ്യത്തിലും വേണ്ടത് തന്നെയാന്ന് ഇപ്പോൾ കൂടാതെ തന്നെ ഇപ്പം പത്താം ക്ലാസ്സ് കഴിഞ്ഞിട്ട് അവരുടെ വിദ്യാഭ്യാസം ഇപ്പം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടീട്ട് അവർക്ക് ഫ്രീയായിട്ട് യൂണിഫോം കൊടുക്കുന്ന കുറെ സംസ്ഥാനങ്ങളുണ്ട് പത്താം ക്ലാസ്സ് എന്നല്ല ഏത് ഇപ്പോൾ ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേഡ് മുതൽ ചില ഗവൺമെൻറ് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്ക് യൂണീഫോം ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അതുപോലെ സ്കൂളുകളിൽ ഇപ്പം കേന്ദ്ര സർക്കാറിൻ്റെ കീഴിലൊക്കെയുള്ള സ്കൂളുകളിൽ ഫോർ എക്സാമ്പിള് ഇപ്പോൾ ഇപ്പോൾ ജവഹർ നവോദയ വിദ്യാലയ തന്നെ അതൊരു സി ബി എസ് സി കേന്ദ്ര ഗവൺമെൻറിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളാന്ന് അപ്പം അവിടെ പെൺകുട്ടികൾക്ക് ഫ്രീ ആന്ന് ആൺകുട്ടികൾക്ക് എന്ന് പറയുന്നത് ചില ചെറുതായ രീതിയിലുള്ള ഫീസ് ഇളവ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് അവിടെ ഫീസ് ഇളവ് നൽകുന്നതിലൂടെ അതൊരു ബോർഡിങ് സ്കൂളാന്ന് അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ പെൺകുട്ടികളെ വീട്ടിന്ന് സ്വന്തം വീട്ടിന്ന് പുറത്ത് നിർത്താതെ പല തരത്തിൽ ഉള്ള ഇന്ന് വീട്ടിൽ തന്നെ ചെ അങ്ങനെ പുറത്ത് പഠിക്കാൻ വിടാത്ത അവസ്ഥ ഉണ്ട് പക്ഷേ അത് പൈസ കൊണ്ടാന്ന് സാമ്പത്തികം ആ കുടുംബത്തിൻ്റെ സാമ്പത്തികശേഷി കൊണ്ടായിരിക്കും അങ്ങനെ പുറത്ത് വിട്ട് ഇപ്പം സി ബി എസ് സി പോലുള്ള സബ്ജക്റ്റൊന്നും പഠിപ്പിക്കാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടീട്ടാന്ന് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് കീഴിലക്കെ ഇങ്ങനെയുള്ള സ്കൂള് കൊണ്ടു വരുന്നത് ഫീസ് ഇളവ് ആക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഫീസില്ലാതെ അവരുടെ വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാനാന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നത് അപ്പം അതുകൊണ്ടു തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഫലപ്രദമാണ് അവരുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടീട്ട് കൂടുതൽ ഇങ്ങനെയുള്ള പദ്ധതികൾ നിലവിൽ വരുത്തേണ്ടതാണ് എന്നാന്ന് എൻ്റെ അഭിപ്രായം